ഹലോ ഹലോ തോമസേട്ടനല്ലേ തോമാസേട്ടനല്ലേ ഞാനിങ്ങനെ ഇവിടെ ശ്രീബുദ്ധ കോളേജീന്ന് വിളിക്കുക ഞാനത് എൻ്റെ പേരർജുൻന്നാണേ ഞാനിങ്ങനെ എനിക്കൊരു വീട് വാടകക്ക് ആവശ്യമായിട്ട് ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് എനിക്കിങ്ങനെ ഞാൻ ഇവിടെ ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാന്ന് പഠിക്കുന്നത് ഒന്ന് ഒരു ഇതിൻ്റെ കോഴ്സ് കയി ഞാൻ വേറെ ഞാനൊരു കോട്ടയംകാരനാണ് അപ്പോൾ എനിക്കിവിടെ പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനിവിടെ താമസിക്കാനായിട്ട് വന്നതാപ്പം എനിക്ക് വല്ല വീട് കാണുമോ രണ്ട് പേർക്ക് രണ്ടാണുങ്ങളാണ് രണ്ട് മുറീന്ന് പറയുമ്പം സിംഗിളാണേൽ കുഴപ്പമില്ല ഞങ്ങളാണുങ്ങളായോണ്ട് തന്നെ അഡ്ജസ്റ്റ ചെയ്തോളാം വലിയൊരു നമ്മുടൊരു ബഡ്ജറ്റ് നമ്മുടൊരു അതിച്ചിരി കുറവാണ് അപ്പൊന്ന് അതിനനുസരിച്ച് നമുക്കടുത്തുള്ളതായിട്ടൊരു കാര്യങ്ങൾ കിട്ടിയാൽ നല്ലതായിരുന്നു കോളേജിൽ പോയി വരാനേ ആ അപ്പോൾ അതിന് പറ്റിയൊരു മുറി സിംഗിളാണേലും കുഴപ്പമില്ല സിംഗിളാണേൽ നമക്കഡ്ജസ്റ്റ ചെയ്യാം കുഴപ്പമില്ല റൂ റൂം റൂ റൂം കാണോ അപ്പം ഇനി എന്തൊക്കെ ഇപ്പം നമുക്കടുത്ത് ഇപ്പം എന്തൊക്കെ ഫെസിലിറ്റി കാണിതിൻ്റടുത്ത് നമുക്ക് പോയി പോയിട്ട് വരാനായിട്ടിപ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും കടകളാണെങ്കിൽ നമുക്ക് വലിയ ദൂരം ആ ഹാ ഹാ ആ അപ്പം നമുക്ക് ഇതെവിടാണ് കറക്റ്റ് ഇത് ആ ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ അത് നല്ലതാണപ്പം എനിക്കിത് വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടപ്പോൾ എന്നത്തേക്കൊന്ന് കാണാൻ പറ്റുമെന്ന് പറയാവോ തിങ്കളാഴ്ച വരാവല്ലേ അപ്പം ഞാനും എൻറ്റൊരു കു ആ വരാം വരാം കുഴപ്പമില്ല അത് കുഴപ്പമില്ല നമുക്കത് ആ ശരി ശരി അപ്പം ഈ ഇതിൻ്റെ ഒരു ആവശ്യമെന്ന് വെച്ച് കയിഞ്ഞാൽ എന്നാ ഒരു റൂമിനെന്നാ വാടക വരും എന്തഡ്വാൻസ് തരേണ്ടി വരും

ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ എന്നാ മാസമെന്നാ വാടക വരുന്നത് വല്ലോം പറയാൻ പറ്റോ ആ ഓക്കെ അപ്പം ഇ ഈ രണ്ടായിരം രണ്ടായിരം രൂപ നമ്മൾ വാടക മാസം വാടക തരാം അപ്പം അത്തരത്തിലുള്ള ഫെസിലിറ്റി കാണുമോന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ആ അപ്പം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനും എൻ്റെ കൂട്ടുകാരനുണ്ട് അങ്ങനത് നോക്കി കഴിയുമ്പം രണ്ട് പേർക്കൂടെ താമസിക്കാനായിട്ട് കുഴപ്പമില്ലെന്നാണെനിക്ക് തോന്നുന്നത് അപ്പോൾ ഫുഡ് ആൻഡ് ഫുഡ് അക്കോമഡേഷൻ കാണോ ഫുഡ് ആൻഡ് അക്കോമഡേഷനുൾപ്പെടെ അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ അത് കിട്ടും നല്ല ഇപ്പോൾ ഹോംലി ഫുഡായോണ്ട് തന്നെ കുഴപ്പമില്ലായിരിക്കും അല്ലേ ആ ആ ആ ശരി ശരി ആ അത് നല്ല അത് നല്ല കാര്യവാണ് ബാത് റൂം അറ്റാച്ഡ് ബാത് റൂമുള്ളത് നല്ലതാണ് ഞാനത് പറയണോ വെച്ചിരിക്കായിരുന്നപ്പോൾ അറ്റാച്ച്ഡ് ബാത്ത് റൂം ഒരു മുറി ഓക്കെ അപ്പോൾ കോളേജുന്ന് കോളേജിൽ പോകേണ്ട വലിയ ദൂരം കാണില്ലല്ലോ കോളേജിന്നിവിടുന്ന് നടന്ന് പോവാനുള്ളൊരു അതെ അതെ അതെ അപ്പം ബസ് ആ നടന്ന് പോവാനുള്ള ദൂരമേ ഉള്ളതോ ബസ് ബസിനെന്നെ പോകേണ്ടി വരോ ഓ ഒരു കിലോ മീറ്ററുണ്ടല്ലേ ആ അതെന്നാ നടന്നാണേലും പോവാൻ എനിക്കീ രാവിലത്തെ ഒരത്യാവശ്യം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് പിന്നെ ഇവിടുന്നടുത്ത് വല്ല ഈ ആ ആ ആ ആ അപ്പോൾ എനിക്കീ അടുത്ത് വലിയ വല്ല കടകളിൽ വല്ല പാർട്ട് ടൈമായിട്ട് വല്ല പാർട്ട് ടൈമായിട്ട് വല്ല ജോലിക്ക് പോണെങ്കിലും എനിക്കതിന് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ പോയി വരുന്നതിന് അപ്പം അങ്ങു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആ ഞാൻ ഞാൻ തിങ്കാളാഴ്ചത്തേക്ക് വരാനായിട്ട് നോക്കാം ഓക്കെ ഓക്കെ ആ ഞാൻ വിളിച്ച് ഞാൻ വിളിച്ചിട്ടേ വരത്തുള്ളൂ അപ്പം ചേട്ടനൊന്ന് റെഡിയായി നിന്നാൽ മതി നമുക്കൊന്ന് പോയി കാണാം ഓക്കെ ഓക്കെ ചേട്ടാ ഓക്കെ താങ്ക് യൂ